ജീവിതത്തിലെ മംഗളകരമായ സംഭവം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മംഗളകരമായ ഒരു സംഭവമാണ് വിവാഹം എന്നുള്ളത്

അവളെ ഞാൻ എന്ന് കണ്ടെത്തി എന്ന് എനിക്ക് അറിയില്ല എന്നാണ് അവളെ കണ്ടതെന്നും എനിക്ക് അറിയില്ല പക്ഷേ എന്നോ ഒന്നിച്ചൊഴൂകിയ അരുവി പോലെ ഇല്ലെങ്കിൽ എന്നോ എവിടെയോ പുഴയിൽ ചേർന്ന കയ്യിത്തോടു പോലെ അത് ജീവിതത്തിൽ ഒന്നായി തീരുകയാണ് ചെയ്തത് കണ്ടു ഇഷ്ടപെട്ടു പിന്നീട് തുറന്ന് സംസാരിച്ചു തുടർന്നു തുടർന്ന് തുടർന്ന് ഇങ്ങന്നെ എപ്പോഴോ ഇത് ജീവിതത്തിലേക്ക് കടന്നു വന്നു കടന്നു വന്നു പക്ഷേ എങ്കിൽ അങ്ങനെ ആണെങ്കിൽ പോലും സമൂഹത്തിൻറെ ഇടയിൽ വെറുമൊരു പ്രേമ വിവാഹമായി തീർക്കാൻ നമുക്ക് പറ്റില്ല നമ്മൾ വീട്ടിൽ പോയി രക്ഷിതാക്കളുമായി ആലോജിച്ചു രക്ഷിതാക്കളുടെ സമ്മതമുണ്ടായി ഓഫീഷ്യലായിട്ടുള്ള സംവിധാനങ്ങൾ തന്നെയാണ് നടന്നത് പെണ്ണ് കാണൽ നടന്നു പിന്നീട് ചെറുക്കൻറെ വീട്ടുകാർ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടുകാരെ പോയി കണ്ടു പെണ്ണിൻ്റെ വീട്ടുകാർ ചെറുക്കൻ്റെ വീട്ടുകാരെ വന്ന് കണ്ടു അവർക്ക് ഇഷ്ട്ടപെട്ടു പിന്നീട് അവർ തിയതി നിശ്ചയിച്ച് ഒത്ത് കല്യാണം നടത്തി പിന്നിട് കല്യാണത്തിലേക്ക് പോയി ഇങ്ങന്നെ ഒന്ന് മംഗളകരമായ ഒരു ജീവിതം ഒരു സംഭവം ആരംഭിക്കുമ്പോൾ ഇവിടെ സമൂഹത്തിൽ വളരെ പ്രധാന്യം അർഹിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ വിവാഹം എന്നുളളത് അത് ഒരു കേവലം രണ്ട് വ്യക്തികളുടെ ബന്ധമല്ല മറിച്ച് ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ രണ്ട് കുടുംബങ്ങളുടെ അല്ലങ്കിൽ രണ്ട് കുടുംബങ്ങൾ മാത്രമല്ല ഒരുപക്ഷേ അവരുടെ ബന്ധുക്കളും അവരുടെ ബന്ധുക്കളും എല്ലാ ധാരാളം ജനങ്ങളുടെ ഒരു ഐക്യമാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത് ധാരാളം ജനങ്ങളുടെ പല കുടുംബങ്ങളുടെ അവരുടെ എല്ലാം ഐക്യമായ അല്ലെങ്കിൽ ഒരു കൂട്ട് അല്ലെങ്കിലൊരു ഒരു സഹവർത്തിത്തമാണ് ഇതിനകത്ത് സംഭവിക്കുന്നത് അപ്പോൾ ഒരു വിവാഹം എന്ന് പറയുന്നത് വളരെ പ്രധാന്യമുള്ള സമൂഹ ജീവിതത്തിൽ സാമുഹ്യ ജിവിതത്തിൽ വളരേ പ്രാധാന്യമർഹിക്കുന്ന ഒരു കടമ്പയാണ് ഇല്ലെങ്കിൽ ഒരു പ്രവർത്തനമാണ് വിവാഹം എന്നുള്ളത്

ദൈവം ദൈവം കൂട്ടിചേർക്കുന്നത് മനുഷ്യൻ മാറ്റുന്നത് നന്നല്ല എന്നത് പോലെ ഇല്ലെങ്കിൽ ദൈവമാണ് ഇവരെ എല്ലാം ഇല്ലെങ്കിൽ ഒരു പുരുഷന് ഒരു സ്ത്രീയെ ദൈവം എവിടെയോ കണ്ടുവച്ചിട്ടുണ്ട് എവിടെയോ ജനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്

അതാണ് സത്യം അത് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അത് അവർ ഒന്ന് ചേരുകയും പിന്നിട് അവരുടെ സമ്പദ്യങ്ങളെല്ലാം ഒത്ത് ചേരുകയും അവരുടെ അടുത്ത ജീവിത ജനങ്ങൾക്ക് ഇല്ലെങ്കിൽ അടുത്ത തലമുറക്ക് അവരെ വിത്ത് പാകിയും ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഒരു സമുഹത്തിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ളൊരു വിവാഹം ഇല്ലെങ്കിൽ ഒരു വിവാഹ ബന്ധം എന്നു പറയുന്നത് സാമൂഹിമായ കാഴ്ച്ചപ്പാടിൽ വളരെ പ്രധാന്യം അർഹിക്കുന്നു ഒരു സമൂഹത്തിന് ഇല്ലെങ്കിൽ സമൂഹം നില നിൽക്കുന്ന കുടുംബങ്ങളിലൂടെയാണ് കുടുംബങ്ങൾ ഉണ്ടാകേണ്ട സമൂഹത്തിൻ്റെ ആവിശ്യമാണ് ഇല്ലെങ്കിൽ സമൂഹം ഇല്ലെങ്കിൽ കുടുംബം ഉണ്ടായില്ലെങ്കിൽ ഇവിടെ ഒരു ജനസമൂഹം ഇല്ലെങ്കിൽ ഒരു തലമുറ തന്നെ ഇല്ലാതായി പോവുന്നു ജനങ്ങളിൽ പുതിയ പുതിയ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുകയും പുതിയ കുടുംബങ്ങൾ ഉണ്ടാകുകയും ചെയ്തെങ്കിൽ മാത്രമേ രാജ്യത്തിൽ എപ്പോഴും തലമുറ പുതിയ തലമുറകൾ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുകയുള്ളു ഇല്ലെങ്കിൽ ആദ്യത്തെ തലമുറയോട് കൂടി പിന്നെ വൃദ്ധ തലമുറയോട് കൂടി ഈ സമൂഹം അസ്തമിച്ച് പോകുന്നു അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിവാഹം എന്നുള്ള ആ ഒരു മംഗളകരമായ കാര്യം സമൂഹത്തിൽ വച്ചിരിക്ക്ന്നത്

സമൂഹത്തിൻ്റെ അറിവോടും സമ്മതത്തോടും കൂടി ഒരു രണ്ട് വ്യക്തികൾ ഇല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും ബന്ധത്തിലാവുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ അശിർവാതത്തോടു കൂടിയാവുമ്പോൾ അത് സമുഹികമായ നിലനിൽപ് ഇതിനകത്ത് ഉണ്ടാവുന്നുണ്ട് രണ്ടുപേ രും രണ്ട് മതത്തിലാവുകയും രണ്ട് വ്യക്തിത്വങ്ങളാവുകയും സമൂഹം അംഗികരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ഒക്കെ വളരെ ബുദ്ധിമുട്ടായ ജിവിതമാണ് സമർപ്പിക്കേണ്ടി വരിക ഇല്ലെങ്കിൽ കഴിച്ചു കൂട്ടേണ്ടി വരിക ഒരു പക്ഷെ അവർ അകാലത്തിൽ പിരിഞ്ഞ് പോവാനും സാധ്യതകളുണ്ട് പക്ഷേ സമൂഹം മനുഷ്യനൊരു സമുഹ ജീവിയായതുകൊണ്ട് സമൂഹത്തെ ഇതിനകത്ത് നിലനിർത്തി മെല്ലെ സമൂഹത്തിൽ മനുഷ്യൻ നിലനിന്നെ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇത്തരം ഒരു ബന്ധം ഇല്ലെങ്കിൽ സാർവത്രികമായ ബന്ധം ഇല്ലെങ്കിൽ സമൂഹം അംഗികരിക്കുന്ന ബന്ധങ്ങൾ ഇവിടെ ഉടലെടുക്കേണ്ടത് ആവിശ്യമാണ് അങ്ങനെ വരുമ്പോൾ വിവാഹം എന്നുള്ളത് സമൂഹം അംഗീകരിക്കുന്ന സമൂഹത്തെ പരിപോഷിപ്പിക്കുന്ന ഒരു ബന്ധമാണ്